ഹലോ മൊബൈൽ ഷോപ്പിലെ ഗ്രിഗറിയല്ലേ എനിക്ക് ഒരു ഫോ ഞാൻ ജോയായിരുന്നു എനിക്ക് ഒരു മൊബൈല് നോക്കാനായിരുന്നു മറ്റേ നമ്മുടെ ഈ പോക്കോടെ എന്തേലും മൊബൈല് ഇപ്പോൾ അവൈലബ്ൾ ആയിട്ടുണ്ടോ എക്സ് ത്രീ അല്ല എക്സ് ഫൈവ് പ്രൊ ഫൈ ജി അവൈലബിൾ ആയിട്ടുണ്ടോ ഇപ്പം മറ്റേ ഫോണെന്ന് പറയുമ്പം ഏത് ഏത് ഫോൺ ഏത് കമ്പനിയായിരുന്നു ഈ സാംസങ് എച്ച് പി അങ്ങനെ ചാർജ് നിൽക്കുന്നില്ല അങ്ങനൊക്കെ കുറേ പ്രശ്നം കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയാണോ ഈ എനിക്ക് കൂടുതൽ ഒരു ഡെയ്ലിങ്ങിനൊരു യൂസിനു വേണ്ടിയായിരുന്നു പക്ഷേ ഞാൻ നടത്തിയിട്ടുള്ള ഒരു റീസേർച്ച് വെച്ച് നോക്കുമ്പം കൂടുതൽ ഒപ്പ്റ്റിമെറായിട്ടുള്ള പോക്കോ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ നല്ലത് പിന്നെ ഈ സാംസങ് ഫൈ ജി ആയിരുന്നോ ഫൈ ജി ആയിരുന്നോ അത്പോലെ ഈ വേറെയുള്ള അവൈലബ്ൾ ആയിട്ടുള്ള ബ്രാൻഡ്കളൊന്നും എച്ച് പി അതെല്ലാം ഈ ഫൈവ് ജീടെ ബേസിലാണോ വരുന്നത് ആഹാഹാ ആഹാ കൂടുതലും പക്ഷേ ഒരു പോക്കോയാണ് കാരണം ഈ ഗെയ്മിങ്ങിനും പോക്കോ തന്നെയാണ് ഏറ്റവും നല്ലത് ഈ

ഹാ ഹാ ആ ഈ പോക്കോയ്ക്ക് ഇപ്പം എത്ര ജീ ബി റാം വരുമായിരിക്കും ഒരു എട്ട് ജീ ബി റാമ് ഒക്കെ വരത്തില്ലായിരിക്കുമോ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെയൊന്ന് ഓഡ്രെ ചെയ്ത് വെച്ചേക്കണം എന്നാൽ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചാൽ മതി കോൾ ചെയ്താൽ മതി